ആ പീതാമ്പരൻ സാറല്ലെ ആ സാറേ അ ഞാനിന്നത്തേ മറ്റെ വടം വലി പ്രാക്റ്റീസിനെപ്പറ്റിയൊന്ന് അറിയാൻ വിളിച്ചതാണ് ഇന്ന് വൈകുന്നേരം ഉണ്ടാവുവോ ഇന്നലെ വന്നിട്ടാരെയും കണ്ടില്ല

ആണല്ലേ ഇന്നെന്തക്കെയാണ് ചെയ്യിപ്പിക്കാൻ പോണത് ആണല്ലേ ആ പിന്നെ ഇന്ന് ഗോപാലൻ പറഞ്ഞു മറ്റേ കോളേജീന്നക്കെ സ്റ്റുഡൻറ്റ്സ്സ് നമ്മോടൊപ്പം പ്രാക്റ്റീസ്സ് ചെയ്യാൻ വരണുണ്ടെന്ന്

ആ ആ പിന്നെ സാറേ ഒരു ആ പറഞ്ഞോളു സാറെ ആ അതുണ്ട് ആ അത് മിനിങ്ങാന്ന് സതീശൻ വടം വലിക്കുന്നിടയിൽ വെയ്ലത്ത് വലിച്ചോണ്ടാന്ന് തോന്നണു ബോധം കെട്ട് വീണ് ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടറ് പറഞ്ഞത് ആ ഇപ്പം കുഴപ്പമില്ല ഒരാഴ്ച്ചത്തേക്ക് വലിക്കണ്ടന്ന് പറഞ്ഞു ഗ്ളൂക്കോസ്സ് കയറ്റികിടത്തിയാരുന്നു ഞാനിന്നലെ കണ്ടായിരുന്നു അപ്പോൾ വലിയ കുഴപ്പമൊന്നുവില്ല അടുത്താഴ്ച്ച തൊട്ട് വരാന്ന് പറഞ്ഞുണ്ടായി അവൻ ആ സാറെ പിന്നൊരു ഡൗട്ട് ഈ വടം വലിക്കുമ്പഴേ കൈയ്യങ്ങ് പൊട്ടിപ്പോണു അപ്പം അതിനെന്താണ് ചെയ്യേണ്ട നല്ല എരുവ് അത് കാരണം പിടിക്കാനൊന്നും പറ്റണില്ലതിൽ ആണല്ലേ തല്ലുപോയി ആണല്ലേ ഓക്കെ സാറെ ചെയ്ത് നോക്കാം പിന്നെ ഈ വടം വലിക്കുമ്പം പെട്ടന്ന് വയ്യാണ്ടാവുണു അതിപ്പോൾ ഫുഡ്ഡിൻ്റെ ഭക്ഷണത്തിൻ്റെ വല്ല പ്രശ്നായ്ക്കുവോ അതോ ഇങ്ങനെ വലിച്ച് വലിച്ച് ശീലവാത്തതിന്റെ വല്ലതുവാകുവോ

ഓ ആയി സാറെ

ഓക്കെ പിന്നെ ആ

ആ പനീറ് കഴിക്കാറുണ്ട് സാറെ അമ്മയോടും പറഞ്ഞേക്കാം എന്തായലും ഇപ്പം പിന്നെ സാറെ അടുത്താഴ്ച്ച ഒരു കളിയുണ്ടെന്ന് പറഞ്ഞു അതിനെപ്പറ്റി വല്ല ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നോ

ആണല്ലേ ആ ആ അപ്പം നമുക്ക് ആ അതിൻ്റെ ജേഴ്സി ഞാൻ തൈക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ദിവസത്തിൽ കിട്ടും എന്ന് പ്രതീഷിക്കുണു ആ ശരിയെന്നാൽ സാറെ എ ഐ ആ കോച്ചിനുള്ളത് അടച്ചിട്ടല്ലെ സാറെ എന്തായാലും കിട്ടും സാറിനിത്തിരി വൈകും എന്നാലും കിട്ടും ഉറപ്പ് അ ആ ഓക്കെ എന്നാൽ ആ വൈകിട്ട് കാണാം അപ്പം ഓക്കെ സാറെ ബൈ